ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരു വലിയ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോൾ അവിടന്ന് കുറെ നേരം കളിച്ചു ആ കളിച്ചിട്ട് അവസാനം ആയപ്പോൾ അവസാനം അല്ലാ പൈൻറ്റ് കളിയുടെ അവസാനം ആയപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വീണു വീണു പായുമ്പോൾ ഫുട്ബോളായിരുന്നു കളിക്കുന്നത് ഫുട്ബോള് കളിക്കുമ്പോൾ പായുമ്പോൾ വീണു എൻ്റെ കാലിൻ്റെ മുട്ടിന് ഒരു അൽപ്പം അൽപ്പം വലുതായിട്ട് ഒരു ചെറിയ മുറിവുണ്ടായി അത് അതുകൊണ്ട് അത് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ എല്ലാ പിള്ളേരും എല്ലാ കൂട്ടുകാരും എന്നെ എടുത്തിട്ട് അടുത്തുള്ള വീട്ടിൽ പോയി ആ മുറിവിൽ മരുന്ന് മുറിവ് ആദ്യം മുറിവ് മുറിവുള്ള സ്ഥലത്ത് ആദ്യം നന്നായിട്ട് നല്ല വെള്ളം കൊണ്ട് കഴുകീട്ട് അതിനുള്ളിൽ മറ മുറിവ് വച്ചിട്ട് കെട്ടുകയായിരുന്നു ചെയ്തത് പിന്നെ എനിക്ക് കൂട്ടുകാരെല്ലാം വെള്ളം കൊണ്ടു തന്നു എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കൂട്ടുകാർ ചെയ്തിരുന്നു അതുപോലെ പിന്നെ വേറെ ഒരു സ്ഥലത്തു പോയപ്പോൾ ഇതെപോലെതന്നെ അപ്പോൾ ഇതേപോലെ തന്നെ എനിക്ക് ചെറിയ തല ചുറ്റലുണ്ടായിരുന്നു ഉണ്ടായിപ്പെട്ടു ഉണ്ടായി അതും ഇത് പോലെ തന്നെ അത് ഞാൻ വേറെ ഒരു നാട്ടിൽ പോയപ്പോളാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത് എൻ്റെ അവിടെയുള്ള എല്ലാ ആൾക്കാരും എന്നെ എടുത്തിട്ട് അവിടുത്തെ ഒരു കമ്മറ്റി ഓഫീസ് ഉണ്ടായിരുന്നു ആ കമ്മറ്റി ഓഫീസിൽ ഇരുത്തീട്ട് എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എനിക്ക് വെള്ളം തന്നു പിന്നെ പിന്നെ ഓക്കേ ആണോന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഓക്കേ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ആശുപത്രീ ആശുപത്രി പോയിട്ട് അതിന് വേണ്ടുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നെല്ലാം അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നം ഇല്ല എന്നാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ എല്ലാ ഏതെങ്കിലും തരത്തിലെ മുറിവോ എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ എല്ലാവരും നല്ല രീതിയിലാണ് സഹകരിച്ചിട്ടുള്ളത്